ഹലോ ഹലോ ആ ഇത് പേപ്പർ മാർട്ട് ആണോ ആ ആ ആ ഹാ ഹാ ഹാ ആ അതെ എനിക്ക് കുറച്ച് ആ ഞാൻ എനിക്ക് പിള്ളേർക്ക് വേണ്ടിയിട്ട് ആ കുറച്ച് ബ്രൗൺ പേപ്പറൊക്കെ വേണമായിരുന്നു അവിടെ ഉണ്ടോ സാധനം ഉണ്ടോ ബ്രൗൺ പേപ്പർ ഉണ്ടോ ആ എനിക്ക് കുറച്ച് ബ്രൗൺ പേപ്പറ് വേണം പിന്നെ എനിക്ക് കുറച്ച് ഈ നെയിം സ്ലിപ്പ് ഒക്കെ ഇല്ലേ ആ പിള്ളാരെ ബുക്കിൽ ഒട്ടിക്കുന്നത് ആ ആ ആ ആ ഹാ അത് അതൊക്കെ വേണായിരുന്നു കുറച്ച് ഈ കൊച്ച് പിള്ളേരുടെയും പിന്നെ അതിൻ്റെ വലുതായിട്ടുള്ള പിള്ളേരുടെ ആ കാർട്ടൂണിൻ്റെ കഥാപാത്രമൊക്കെയുള്ള പടമൊക്കെയുള്ള സ്ലിപ്പ് ഇല്ലേ ആ അങ്ങനത്തെയൊക്കെ വേണം പിള്ളാരല്ലേ പിന്നെ വഴക്കുണ്ടാക്കുമോ ആ അത് ആ അത് അതെ അത് ഞാൻ ഇപ്പം ഒരാൾക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ചെണ്ണം വേണ്ടി വരും ആ ആ അപ്പോൾ പതിനഞ്ചും പതിനഞ്ചും ഒരു മുപ്പതെണ്ണം വേണ്ടി വരും ആ മുപ്പതെണ്ണം വേണ്ടി വരും ആ ഹാ അത് ആ ആ ആ ആ അത് എന്നാന്നോ അപ്പം ഞാൻ വരുമ്പോഴത്തേക്കും എനിക്ക് കിട്ടുമോ എന്നറിയാനായിട്ടാണ് അല്ലെ പിന്നെ ഞാൻ പിന്നെയും പിന്നെയും വരണ്ടേ അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം വന്നിട്ടേ ആ എനിക്ക് ആ എനിക്ക് കുറച്ച് ബ്രൗൺ പേപ്പറും വേണം പിന്നെ കുറച്ച് ബുക്കുകൾ വേണം വരയിട്ട ബുക്കും വരയിടാത്ത ബുക്കും വേണം ആ താ പത്തെണ്ണം ആ ആ വ പത്തെണ്ണം വീതം പത്തെണ്ണം വീതം വേണം പത്തെണ്ണം ആ വരയിടാത്ത ആ വരയിടാത്ത ബുക്കും പത്തെണ്ണം വേണം പിന്നെ ആ ആ ബ്രൗൺ പേപ്പർ ഒരു മൂന്ന് ഈ റോളായിട്ടില്ലേ റോളായിട്ട് മൂന്നെണ്ണം ആ മൂന്നെണ്ണം ആ മൂന്നെണ്ണം മതിയായിരിക്കും ആ നോക്കട്ടെ മൂന്നെണ്ണം ഒരെണ്ണം വച്ച് ഒരു നാല് ബുക്കൊക്കെ പൊതിയാൻ പറ്റോ നാലോ അഞ്ച് ബുക്ക് പൊതിയാൻ പറ്റുമായിരിക്കുമല്ലോ അല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ഒരെണ്ണം കൂടെ എടുത്തോ നാലെണ്ണം എടുത്തോ നാല് റോളെടുത്തോ ആ അയ്യോ ഹയ്യോ അപ്പം എന്നാ ചെയ്യുന്നത് ഞാൻ ആ രണ്ടു ദിവസമെടുക്കുമോ ആണോ പിന്നെ എനിക്ക് എനിക്ക് ഒരു കാൽക്കുലേറ്റർ കൂടെ വേണമായിരുന്നു അത് അവിടെയുണ്ടോ കാൽക്കുലേറ്ററ് ഈ കാൽക്കുലേറ്ററ് ഈ പിള്ളാർക്ക് ഈ ആ കണക്കുകളൊക്കെ അതിനകത്ത് ഇങ്ങനെ വരത്തില്ലേ കൂടുതൽ എന്തൊക്കെയോ ചെയ്യാനുള്ളതൊക്കെ സംഭവങ്ങളൊക്കെയുള്ള ആണോ സ്റ്റോക്ക് ഇല്ല ആ ആ ആ ഹാ ആ അത് അത് തന്നെ അത് തന്നെ അത് തന്നെ അതാണ് വേണ്ടത് ആ അയ്യോ അത് നാളെ വേണമായിരുന്നല്ലോ നാളെ വേണമായിരുന്നു എനിക്ക് പിള്ളാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ആ ആ ആ അയച്ചോ ആ ആണല്ലേ അതിനെന്താണ് പിള്ളാർക്ക് നാളെ എക്സാമാണല്ലോ അപ്പോൾ പിന്നെ ആ ഇപ്പളാ വന്ന് പറയുന്നത് അപ്പം നാളെ അത് വേണ്ടിയിട്ട് ആ ആ ആ ഹാ ഹാ ഹാ ഹാ ആ ഒന്ന് ചോദിച്ച് എടുത്ത് വയ്ക്കാവോ ഹാ ഹാ ഹാ അല്ലെ ആ ഒന്ന് എടുത്ത് വയ്പ്പിച്ച് തരാവോ അങ്ങനെ ആണെങ്കിൽ ആ അങ്ങനെ ആണെങ്കിൽ പിന്നെ ആ ആ ആ

ആ ഒന്നിച്ച് മതി ആ ആ ഹാ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ എല്ലാം കൂടെ ഒരുമിച്ച് വച്ചോ ആ ചെയ്താൽ മതി ഓക്കെ ഓക്കെ ആ ആ ശരി എന്നാൽ ഓക്കെ ആ ഓ ശരി